എട്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് അഞ്ച് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുനൂറ്റി മുപ്പത്തി രണ്ട്